തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകം ഒരു പ്രശ്നങ്ങൾ ഒന്നും ഇല്ല പാർട്ടിക്കാർ ഇവർ ജയിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവർ ആ ടൈമിൽ പറയും പിന്നെ ഓരോന്നോരോന്ന് ചെയ്തു തരാം എന്നു പറയും ജയിച്ച് കഴിഞ്ഞാൽപ്പിന്നെ ഈ പറയുന്നതുപോലെ ചെയ്തു തരില്ല തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് അവർ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണത്